ഹലോ രാമേശ ഹായ് എടാ എനിക്കൊരു സഹായം വേണമായിരുന്നു ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രായമായ ഒരു കിടപ്പിലായ ഒരു അമ്മാവനെ നിനക്കറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല അപ്പം നിനക്കൊന്ന് എന്നെ സഹായിക്കാൻ പറ്റുമോ ഏറ്റവും അടുത്തുള്ള നമ്മുടെ എൻട്രോൾമെൻറ്റ് ആധാർ എൻട്രോൾമെൻറ്റ് സെൻറ്ററിലേയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടു പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളൊക്ക ഒന്ന് നീ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്ക് ആ അമ്മാവനെ ഒന്ന് ആധാർ കാർഡ് നമുക്കെടുത്തു കൊടുക്കാമായിരുന്നു ഏറ്റവും അടുത്തുള്ള എൻട്രോൾമെൻറ്റ് സെൻറർ എവിടെയാണെന്ന് അറിയാമോ നിനക്ക് നമ്മുക്ക് എന്നിട്ട് അത് കണ്ടുപിടിച്ച് അയാൾക്ക് ആധാർ കാർഡ് എടുത്ത് കൊടുത്താലല്ലേ ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊക്ക കിട്ടൂ അയാൾ അവിടെ ഒറ്റയ്ക്കാണ് ആ അമ്മാവൻ കൂട്ടിനാരും ഇല്ല വീട്ടിൽ ഒരു ഒരു അമ്മായിയുണ്ട് അവർക്കും തീരെ വയ്യ ഒന്ന് സഹായിക്കുമോ രമേശാ നീ